ഇപ്പോൾ മൃഗസംരക്ഷണത്തിലൊക്കെ കർഷകർ അഭിമുഖീകരിക്കുന്ന പൊതുവായിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പശുവിനെ വാങ്ങുകയാണെങ്കിൽ തന്നെ അതിന് എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലവണ്ണം നോക്കണം അതിനെ ഇപ്പം അതിനെ പല രീതിയിലുള്ള കുത്തിവെപ്പുകൾ ഇപ്പോൾ കുളമ്പുരോഗം അങ്ങനത്തെ പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഇടയ്ക്ക് പശുക്കൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു അസുഖമായിരുന്നു ചർമ്മ മുഴ എന്ന് പറഞ്ഞിട്ട് അത് വല്ലാണ്ട് സ്പ്രെഡ് ആയിട്ടായിരുന്നു നമ്മളുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി കുറേ പശുക്കളും കിടാവുകൾ അങ്ങനത്തെ പല രീതിയിലുള്ള അവരൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ അത് തടയാൻ വേണ്ടിയിട്ട് അതായത് ഈ ഡോക്ടർമാരൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഇതിൻ്റെ രോഗത്തിനുള്ള പ്ര അതായത് മരുന്നും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ അതിനെയൊക്കെ നല്ലരീതിയിൽ ചെറുക്കാൻ വേണ്ടിയിട്ട് അതിന് മ്പ ആന്റി ബയോട്ടിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഇപ്പം കൂടുതലായിട്ട് കൊളമ്പ് രോഗത്തിനാണ് കൂടുതലായിട്ടും പ്രതിരോധ മരുന്നും കാര്യങ്ങളൊക്കെ കുത്തിവെക്കാറുള്ളത് പിന്നെ ഇതിനെ ഇൻഷുറും ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് കാരണം എന്തെങ്കിലും പശുവിന് സംഭവിച്ചു കഴിഞ്ഞാൽ ആണെങ്കിൽ തന്നെ നമുക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പലരീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നല്ലൊരു മൃഗത്തെ അതായത് ഒരു നമ്മൾ ഇപ്പൊരു പശുവിനെ ഒക്കെ വളർത്തുകയാണെങ്കിൽ നമ്മൾ അതിനെ കൂടുതലായിട്ടും പിന്നെ പലരീതിയിലുള്ള അതായത് പുല്ല് കൃഷി അങ്ങനത്തെ പല രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ടും വീട്ടിനടുത്ത് തന്നെ നടു നടുവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിവരും